സുഹൃത്തുക്കളെ നമ്മൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മയെ കുറിച്ചു നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ വേദനാജനകമായ കാര്യം തന്നെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കേരളത്തിലെ യുവാക്കളും മലയാളികളൊക്കെ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കേരളം തന്നെ ഒരു ബംഗാളും ആസാമുമൊക്കെയായി മാറുകയാണ് പുറത്ത് നിന്ന് ബംഗാളികളിൽ നിന്ന് ഈട ആളുകൾ ഇല്ല യുവാക്കൾ ഇല്ല യുവാക്കളെല്ലാം ജോലി തേടി അങ്ങട് പുറത്തു പോവുകയാണ് ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം നമ്മൾ കാണേണ്ടത് എന്നു വച്ചാൽ യുവാക്കൾക്ക് നല്ല ശമ്പളമായ രീതിയിൽ നമ്മൾ ഇപ്പോൾ തുടരുന്ന ഈ മാസത്തിലുള്ള പതിനഞ്ചായിരം പതിനെട്ടായിരം എന്നുള്ള ശമ്പളം മാറ്റി അതുകൊണ്ടൊന്നും ഒരാൾക്കും ഒരു ഒരു ആഴ്ച പോലും ജീവിക്കാൻ കഴിയുകയില്ല ആ ശമ്പളത്തിൻ്റെ ഈ സ്കെയില് നമ്മൾ വെയജ് സ്കെയില് നമ്മൾ കൂട്ടുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ അതിൽ നിന്ന് പ്രത്യേക ഒരു ഇടപെടൽ നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് കാരണം യുവാക്കളൊക്കെ പുറം ലോകം തേടി പോകുന്നത് അവർക്ക് കൂടുതൽ ശമ്പളമാണ് എന്നാലെ അവർക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പ്രധാനമായിട്ടും സർക്കാറിൻ്റെ ഭാഗത്തു നിന്ന് യുവാക്കളുടെ ജോലിയിലെ ജോലി ഉറപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ യുവാക്കളുടെ നിലനിൽപ് ഉറപ്പാക്കാൻ വേണ്ടി വെയജ് സ്കെയില് കൂട്ടേണ്ടതുണ്ട് ഇപ്പം നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതു പോലെ യുവാക്കളെല്ലാം ഇപ്പോൾ ഡിജിറ്റൽ എ ഐ ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ മേഖലയാണ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ് എ ഐയിലുള്ള പഠനത്തെ നമ്മൾ കൂടുതൽ പ്രോൽസാഹിപ്പിക്കേണ്ടതുണ്ട് അതിലൂടെ നമുക്ക് അഡ്വെർടൈസ്മെൻറ്റ് അത് തന്നെ അഡ്വർടൈസ് ഏജൻസയിലൂടെ നമുക്ക് കുറേ പണങ്ങൾ ഒരു വർക്ക് ഏറ്റെടുക്കുമ്പോൾ തന്നെ കുറേ പണംം സമ്പാദിക്കാൻ സാധിക്കും ഇപ്പം മൊത്തത്തിൽ കേരളത്തിൽ ഒന്ന് സ്മാർട്ട് സിറ്റിയിൽ നിന്ന് സ്മാർട്ട് സിറ്റിയിലേക്ക് മാറ്റുന്നുണ്ട് ടെക്നീഷ്യനിലേക്ക് മാറ്റേണ്ടതുണ്ട് അപ്പം നമ്മൾ ശ്രമിക്കുന്നത് പോലെ നമ്മളെല്ലാം അറിഞ്ഞതു പോലെ യുവാക്കളെ പുറം ലോകത്തേക്കുള്ള കയറ്റുമതി കയറ്റി പോകലിനെ ഇത് തുടർച്ചയായ ഈ നീക്കത്തെ നമ്മൾ തടയിടേണ്ടതുണ്ട് എന്നാൽ തന്നെയള്ളൂ കേരളത്തിലെ വരും ഭാവി തലമുറയ്ക്ക് കേരളത്തിൽ ഒന്ന് പ്രചോദിപ്പിക്കാനും കേരളത്തി ഒന്ന് ഉത്സാഹപ്പെടുത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം യുവാക്കളാണ് ഒരു സമൂഹത്തിൻ്റെ നട്ടെല്ലും ഒരു സമൂഹത്തിൻ്റെ ഇനി വരുന്ന തലമുറയിലേക്ക് ഉള്ള സമ്പത്തും യുവാക്കളാണ് ഈ എന്താണ് ഈ തൊഴിലില്ലായ്മ കേരളത്തിൽ എന്തുകൊണ്ട് തൊഴിലില്ലായ്മ കൂടി വരുന്നു ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞത് തന്നെ വേജ് സ്കൈയില് കുറയ്ക്കണം കൂട്ടണം എന്നാലെ ഇവിടെ തൊഴിൽ കൂടുകയുള്ളു യുവാക്കൾ ഇവിടെ നിൽക്കുള്ളു യുവാക്കൾ തൊഴിൽ തൊഴിൽ ചെയ്തു കൂടുകയുള്ളൂ ഇപ്പോൾ കേരളം എന്നു പറയുന്നത് പല താഴ്ന്ന രീതിയിലേക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ മാറിയിട്ടുണ്ട് ഇതിന് പുറമേ തന്നെ സർക്കാർ പല വഴികളിലും വഴികളിലൂടെയും പുതിയ പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കണം എന്നാലേ അവർക്ക് ജോലി സാധ്യത ഉണ്ടാവുകയുള്ളൂ ഐ ടി കമ്പനികൾ വരണം ടെക്നോളജീസ് വരണം എ ഐ ഡിജിറ്റൽ മാർക്കറ്റിന് പഠിക്കുന്ന പുതിയ പുതിയ യുവതലമറ നമുക്ക് വാർത്തടുക്കേണ്ടതുണ്ട് ഇതിലൂടെ എല്ലാം കേരളത്തിൻ്റെ ഭാവി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പം അതിനാവണം ഇനിയുള്ള ഓരോ സർക്കാരിൻ്റെ ഒരോ നീക്കങ്ങളും നമ്മുടെ ഒഴിവ് സമയങ്ങളെ നമ്മള് വെറുതെ കളാതെ ശ്രമിച്ചു കൊൊണ്ട് നമ്മൾ എന്തെങ്കിലൊക്കെ നേടിയെടുക്കുന്നുുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം എല്ലാ വിധ ആശംസങ്ങളും യുവാക്കൾക്ക് നേരുന്നു